പ്രത്യേക പരിചരണം ആവിശ്യമുള്ള വിഭാഗമാണ് നവജാത ശിശുക്കൾ ഏതൊരു വീട്ടിലായാലും നവജാത ശിശുക്കൾക്ക് അവരുടെ ആ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ ഒരു പ്രത്യേക രീതിയിലുള്ള പരിചരണവും വാത്സല്യവും സ്നേഹവും എല്ലാം നൽകാറുണ്ട് ജനിച്ച ആദ്യ വർഷത്തിൽ അവരുടെ ഭക്ഷണ ക്രമം എന്തെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ആറുമാസം പൂർണമായും മുലപ്പാൽ തന്നെയാണ് ഏതൊരു അമ്മയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ചില ആളുകൾ മുലപ്പാലിനോടൊപ്പം കുറുക്കും കൊടുത്ത് തുടങ്ങും എന്നാൽ മിക്കവരും ആറുമാസത്തിന് ശേഷമാണ് അത് തുടങ്ങുന്നത് ആറുമാസം പൂർത്തയായ ശേഷം അവർക്ക് ഒരു റാഗി പന്നപുല്ല് നവര എന്നിങ്ങനെയുള്ള ധാന്യങ്ങളുടെ കുറുക്ക് അതോടൊപ്പം തന്നെ കുറേശേ ചോറും കൊടുക്കുവാൻ ആരംഭിക്കും പിൻ അത് ചോറു കൊടുക്കുന്നതിനോടൊപ്പം ചില സസ്യാഹാരങ്ങൾ അതായത് ചില പച്ചക്കറികളും കൊടുത്ത് തുടങ്ങാവുന്നതാണ്